ആ ഹലോ എന്താണ് മോളെ അവിടെ നിൽക്കണെ

നല്ല സീ ഫുഡ്ഡുകൾ ഒക്കെ കിട്ടും അവിടെ നിങ്ങൾ ഒരു ഹൗസ് ബോട്ട് എടുത്ത് ഒരു ദിവസം മുഴുവനും വേമ്പനാട്ട് കായൽ മുഴുവൻ ചുറ്റി നടന്ന് കണ്ട് പാതിരാ മണലിൽ ഒക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കറങ്ങിയിട്ട് ഒക്കെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോട്ടിൽ തന്നെ നല്ല കരിമീനും കണവയും കൊഞ്ചും എല്ലാം ഫ്രൈ ചെയ്തും കറി വച്ചും ഒക്കെ അവർ നിങ്ങൾക്ക് തരും

നിങ്ങൾ നേരത്തെ ബൂക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ചിലപ്പോൾ പെട്ടെന്ന് ഒക്കെ വന്നാൽ ചിലപ്പോൾ ഹൗസ് ബോട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് നമ്മൾക്ക് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ ആ പിന്നെ ആ ഹൗസ് ബോട്ട് ഒക്കെ ബുക്ക് ചെയ്യുന്നതിൻ്റെ ഓഫീസിൻ്റെ ഒക്കെ അടുത്ത് തന്നെ ഒരു മലബാർ റെസ്റ്റോറൻ്റ് ഉണ്ട് അവിടെ ആണെങ്കിലും നല്ല വെറൈറ്റി ആയിട്ടുള്ളെ നീണ്ടകരയിൽ നിന്ന് ഒക്കെ വരുന്ന ആ വിവിധ തരം മത്സ്യങ്ങളുടെ ഒക്കെ ഒരു ഒരു ശേഖരം തന്നെ ഉണ്ട് അതിൻ്റെ മത്സ്യ വിഭവങ്ങളുടെ ആ ഉണ്ട് അപ്പോൾ അങ്ങനെ വന്നാലും നിങ്ങൾക്ക് നല്ല ഇത് ആയിട്ടൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്നും ആസ്വദിക്കാൻ പറ്റും അത് പോലെ തന്നെ നിങ്ങൾ ഈ അതും അത് ആ ബോട്ടിംഗ് രാവിലെ നമ്മൾക്ക് ഒരു ഒമ്പത് മണി ഒക്കെ ആവുമ്പോഴാണ് സാധാരണ ഇവിടെ വിദേശികൾ ഒക്കെ വരുകയും സഞ്ചാരികൾ ഒക്കെ വരുമ്പോൾ നമ്മൾ കാണാറുള്ളത് ആ അപ്പോൾ ഒരു രാവിലെ ഒമ്പത് മുതൽ ഒരു നാല് നാലര ഒക്കെ വരെ ആണ് കാണുന്നത് അപ്പോൾ അവർ തന്നെ രാവിലെ നിങ്ങൾക്ക് ആ പ്രഭാത ഭക്ഷണം തരും ഉച്ച ഭക്ഷണം തരും വൈകുന്നേരം എന്തെങ്കിലും ചെറു കടികൾ ഒക്കെ പ്രോ നൽകി വരുന്നുണ്ട് ഹൗസ് ബൊട്ടിൽ നിന്ന് അങ്ങനെ ഒക്കെ കിട്ടും പിന്നെ മീൻ വിഭവങ്ങൾ പിന്നെ കക്കാ ഇതൊക്കെ വച്ച് ഉള്ള വിഭവങ്ങൾ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഇവിടെ നല്ല രുചികരമായിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ ഒക്കെ ആവുമായിരിക്കത്തുള്ളൂ അത്ര ഒക്കെ ആവത്തുള്ളൂ

ആ ആ എന്നാൽ ആ ആ എന്നാ ശരി മോളെ നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി കേട്ടോ ആ ശരി എന്നാൽ ആ